ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കളി നടത്താനുള്ള ഗ്രൗണ്ടും സ്റ്റേഡിയം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരോ സംഘാടകരുമായിട്ട് ഓരോ ഞായറാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ ലീവ് ദിവസങ്ങളിൽ കളി വയ്ക്കാറുണ്ട് അപ്പം കളി വച്ചിട്ട് കുറെ ടീമുകൾ അതിൽ പങ്കെടുക്കാറുണ്ട് ഒരു ഗ്രൗണ്ട് ഫീ ഉണ്ടാവും പങ്കെടുക്കാൻ ആ ഗ്രൗണ്ട് ഫീ അടച്ചിട്ട് പങ്കെടുക്കും കളിയൊക്കെ കഴിഞ്ഞ് വിന്നർക്ക് ഒരു തുക കൊടുക്കും ട്രോഫി ഉണ്ടാവും കുറെ പിള്ളേർ ആയാലും വലിയവരായാലും ഒക്കെ പങ്കെടുക്കും അതിൽ നല്ല ബെസ്റ്റ് പ്ലെയർക്ക് ട്രോഫി ഉണ്ടാവും പൈസയുണ്ടാവും ഒരു അംഗീകാരം ആയിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിലവിടെ കുറെ മക്കൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് കളിക്കാൻ പറ്റുന്നവർക്ക് പുറത്തുപോയി കളിക്കാനും ചാൻസ് കിട്ടും നല്ല കളികൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽനിന്നും പുറത്തുള്ളവർക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും ആ അതുകൊണ്ട് സംഘാടകർ നല്ല രീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ കളി നടത്താറുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കളികൾ നടത്തും വേനൽക്കാലത്ത് അതിനനുസരിച്ചുള്ള കളി നടത്തും ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടുകളിൽ ഉള്ള ഗ്രൗണ്ടുകൾ ഉപയോഗിച്ച് ഫൈവ്സായാലും സെവൻസായാലും ചെറിയ ചെറിയ ക്രിക്കറ്റുകൾ ആണെങ്കിലും കളി നടത്താറുണ്ട്